സി എം എസ് കോളേജ് കാൻ്റീനല്ലയോ ആ ഞാൻ അവിടുത്തെ സ്റ്റുഡൻ്റായിരുന്നു ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനും ഫ്രണ്ട്സും എല്ലാരൂടെ വന്നിട്ട് അവിടെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ചായയും കാപ്പിയൊക്കെയാണ് കുടിച്ചത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എലാവർക്കും മിക്കവാറും ആദ്യം ഒരാൾക്ക് ഇത് ഇത് പോലെ ഹെൽത്ത് പ്രോബ്ലമുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അവർ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ക്ലാസിൽ പോലും പോവാൻ പറ്റാത്ത സ്ഥിതിയിൽ എല്ലാവർക്കും ഹെൽത്ത് പ്രോബ്ലം ആയി അവിടെ എന്തോ കുടിച്ചപ്പോൾ എല്ലാവരും ക്വാളിറ്റി എന്തോ കുഴപ്പമുണ്ട് എന്തോ ഇത് രുചി വ്യത്യാസം എന്തോ പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു ഫ്രണ്ട്സ് നേരത്തെ കുടിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് പോലെ ആ നേരത്തെ അവിടെ സീനിയേഴ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് പോലെ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ പറഞ്ഞതായിരിക്കും അവിടെ പുഴു അതിനകത്ത് പുഴുവിനെ കിട്ടി അതിനകത്ത് ചില പല്ലി കഷ്ണമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെയാണ് വിചാരിച്ചത് അതുള്ളതാന്നോ ഇല്ലെ എന്നറിയത്തില്ല ഇത് പക്ഷേ ഇത് പക്ഷേ കുടിച്ച് കഴിഞ്ഞിട്ട് വേറെ ആരും പുറത്തു നിന്നൊന്നും കഴിച്ചിട്ടില്ല വീട്ടിലെ ഭക്ഷണം തന്നെ കഴിച്ചത് എന്നിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും ഹെൽത്ത് പ്രോബ്ലം ആയി ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല മന്തിയൊന്നും അല്ല എന്തുവാണ് നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് പാളിച്ച പറ്റിയിട്ടുണ്ട് അല്ലാതെ ഞങ്ങളുടെ വക കുഴപ്പമൊന്നും അല്ല ഞങ്ങൾ ഇത് പോലെ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയി തിരക്കിയപ്പോൾ ഫുഡ് പോയ്സണിൻ്റെ പ്രോബ്ലം എന്നാണ് പറഞ്ഞത് അതെന്തോ അതെന്തോ ക്വാളിറ്റി എന്തോ ക്വാളിറ്റിയുടെ കാര്യം നിങ്ങൾ ഈ ഞങ്ങൾ ഇപ്പോൾ എന്തേലും കംപ്ലയിൻ്റ് കൊടുക്കാനും പോലീസ് കേസ് കൊടുക്കാനൊന്നും പോയില്ല കോളേജിലെ തന്നെ ആയത്കൊണ്ട് അത് ഞങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ അവിടുത്തെ എന്തോ പ്രോബ്ലം തന്നെ അവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്തെങ്കിലും മാറ്റി ഇല്ല ഇല്ല ഇല്ല ഇല്ല അവിടെ നിന്ന് അവിടുന്ന് തന്നെ കഴിച്ചത് അവർ നിങ്ങളുടെ കുഴപ്പമായിരിക്കത്തില്ലായിരിക്കും അവർ ഫുഡ് കൊണ്ടു വന്ന രീതിയിൽ എന്തെങ്കിലും തൽക്കാലം ഒപ്പിക്കേണ്ടത് കൊണ്ട് വേറെ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ച് കൊണ്ട് കൊണ്ട് തന്നത് അങ്ങനെ എന്തെങ്കിലും പാളിച്ച പറ്റിയതായിരിക്കണം അത് താനെവിടോ അത് ആയിക്കോട്ടെ തങ്ങൾ എവിടോ ആയിക്കോട്ടെ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം ഇതുപോലെ ഇനി ബാക്കിയുള്ളവരും കുടിച്ച് ഇത് പോലെ പ്രോബ്ലം ആ ആവല്ലല്ലോ ആ ആ മാറ്റി മാറ്റി എങ്ങനെ ആണെന്ന് മാറ്റി എങ്ങനെ ആണെന്ന് വച്ചാൽ ശരിക്ക് ശരിക്ക് നോക്കി കണ്ടും ഒക്കെ ചെയ്യാൻ നോക്കണം ആ ആ അത് ശരി ഇതുപോലെ നോക്കിയും കണ്ടും ഒക്കെ ചെയ്താൽ കൊള്ളാം ആ ശരി എന്നാൽ